എനിക്ക് രണ്ടു കുട്ടികളാണ് ഒരു മോനും ഒരു മോളും മകന് ഒഴിവു സമയങ്ങളില് പന്തു കളിക്കുകയാണ് കൂടുതല് ചെയ്യാറുള്ളത് പന്ത് വളരെ ഇഷ്ടമാണവന് കൂടുതല് സമയങ്ങളും പന്തു കളിക്കാനാണ് അവനിക്ക് അവനിഷ്ടം പിന്നെ മകൾ മകള്ക്ക് ഡാന്സിനോടാണ് താത്പര്യം അവൾക്ക് ഇപ്പം നാല് വയസ്സേയായിട്ടുള്ളൂ അവൾ ഡാന്സ് മൊബൈലിൽ പാട്ടൊക്കെ വെച്ചിട്ട് അങ്കന്വാടിയില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഡാന്സൊക്കെ കളിക്കും പിന്നെ കിച്ചണ് സെറ്റൊക്കെ വെച്ചിട്ട് അരിയുണ്ടാക്കും ചോറുണ്ടാക്കുകയും ദോശ ചുട്ടൊക്കെ കളിക്കും എന്റെ ചേച്ചിയുടെ മകളുണ്ട് അവളുടെ കൂടെയാണ് അവൾ കളിക്കുന്നത് രണ്ടുപേരും അരിയൊക്കെ കിച്ചണ് സെറ്റൊക്കെ വൃത്തിയിൽ വെച്ചിട്ട് അരിയുണ്ടാ അരിയെടു അരി ഒരു പാത്രത്തില് കുറച്ചരിയെടുത്ത് അതിലേക്ക് ഗ്യാസ് സ്ടവ്വുണ്ടല്ലോ ഡമ്മി ഗ്യാസ് അതിലേക്ക് ചോറൊക്കെ വെച്ചിട്ട് പ്ലേറ്റൊക്കെ വെച്ചിട്ടിങ്ങനെ വിളമ്പുന്ന പോലെയൊക്കെ ആക്കിയിട്ടാണ് അവർ കളിക്കാറ് പിന്നെ മകന് മകനെന്നു പറഞ്ഞാൽ പന്ത് ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടിയിട്ട് പന്ത് കളിക്കാന് പോകും ദൂരെയൊന്നുമല്ല വീട്ടിന്റെ മുറ്റത്ത് തന്നെ നല്ല സൗകര്യമുണ്ട് വീട്ടിന്റെ മുറ്റത്ത് തന്നെ കുറച്ച് സമയം പന്ത് കളിക്കും പിന്നെ ചിത്രം വരയ്ക്കാന് ഇഷ്ടാവന് ഒഴിവു ദിവസങ്ങളിൽ വി വിനോദത്തിനായി കുറച്ചു സമയം ചിത്രംവരക്കുകയൊക്കെ ചെയ്യും ഒരു ഡോ ഡ്രോയിങ്ങ് ബുക്കെടുത്തിട്ട് അതിൽ വരയ്ക്കാന് പറ്റുന്ന ചെറിയ ചെറിയ ചിത്രങ്ങളൊക്കെ അവന് വരയ്ക്കും പിന്നെ ഒരു ദിവസം എന്നു വെച്ചു കഴി വെച്ചാൽ അവരുടെ അച്ഛന്റെകൂടെ കടപ്പുറം പോകും നമ്മുടെയിവിടെ കടൽ കാണാന് വേണ്ടി പോയിട്ട് കടലിൽ കളിക്കുകയും മണലിൽ മണലുകൾ കൊണ്ട് എന്താ പറ മണൽ കൊണ്ട് ഗോപുരങ്ങളുണ്ടാക്കുന്നയിത് പിരമിഡ്സൊക്കെ ഉണ്ടാക്കുന്നില്ലേ അതുപോലെ വലിയ വലിയ ഗോപുരങ്ങളൊക്കെ ഉണ്ടാക്കുകയും അതിലേയ്ക്ക് എഴുതുകയും മണലിലേക്കെഴുതുകയും കടലത് മായ്ക്കുകകയൊക്കെ ചെയ്യുന്നതാണ് അവരുടെ വിനോദമെന്നൊക്കെ പറയുന്നത് പിന്നെയുള്ളതിതെന്ന് പറഞ്ഞാൽ ഫോണ് നോക്കും കുറച്ച് സമയം വീഡിയോസൊക്കെ യൂറ്റൂബും യൂറ്റൂബ് വീഡിയോസൊക്കെ നോക്കലാന്ന് കൂടുതൽ അവൻ യൂറ്റൂബിൽ എംഫോട്ടെക്കിന്റെ വീഡിയോസ് നോക്കും ദിയ കുട്ടിയുടെ വീഡിയോസ് നോക്കും അവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണവന് പിന്നെ ടി വി കാണും കുറച്ചു സമയം കുറച്ചു സമയം ഡോറാ ബുജിയുടെ പരിപാടി പിന്നെ ബാല്വീര് പിന്നെ കാര്ട്ടൂണ്സൊക്കെ കാണും പിന്നെ ഹോബീസ്സെന്നു പറഞ്ഞാൽ എന്ത് ഹോബി ഫ്രണ്ട്സിൻറ്റൊപ്പം ക്രിക്കറ്റ് കളിക്കും കുറച്ചു സമയം ക്രിക്കറ്റ് കളിക്കുകയെന്നൊക്കെ പറഞ്ഞാൽ ബേറ്റൊന്നുമില്ല കേട്ടോ വി നമ്മുടെ വീട്ടിലെ മട്ട തെങ്ങിന്റെ ഓലയില്ലേ ഓല ഓലയില്നിന്ന് കിട്ടുന്ന അതൊക്കെ ചെത്തിയിട്ടോലയൊക്കെ കളഞ്ഞിട്ട് അതിന്റെ വലിയൊരു ഭാഗം ബാറ്റു പോലെയൊക്കെ ആക്കിക്കൊടുക്കും അവന്റെച്ഛന് ആ ബാറ്റുപയോഗിച്ചാണ് കളിക്കുന്നത് ബോളെന്ന് പറയുന്നത് ഐസ് ക്രീമിൻ്റെയൊക്കെ ബോൾ ഐസ് ക്രീം വാങ്ങുമ്പോൾ കിട്ടുന്നില്ലേ ആ കപ്പ് അതൊക്കെ ബോളൊക്കെയായിട്ടാണ് അവർ കളിക്കാറ് പിന്നെ കളിക്കുന്നതെന്നാല് ഗോളി കളിക്കും ഗോളി പിന്നെ വിനോദത്തിനായിട്ട് കളിക്കുന്നെന്നു പറഞ്ഞാൽ ഡാന്സ് കളിക്കും മൊബൈലിൽ ഫോണ് വെച്ചിട്ട് പാട്ടൊക്കെ വെക്കും പാട്ടൊക്കെ വെച്ചിട്ട് ഡാന്സ് കളിക്കാറുണ്ട് കുറച്ചു സമയം ഡാന്സൊക്കെ കളിക്കും അത് നമുക്ക് കാണിച്ചു തരും അമ്മാ ഡാന്സ് നോക്കമ്മാന്നിവിടടുത്ത് നിന്ന് ഡാന്സ് നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരും ഏറ്റവും കൂടുതലെന്റെ മകനിഷ്ടം പന്ത് കളിക്കാനാണിഷ്ടം പിന്നെ ഒഴിവു ദിവസങ്ങളിൽ ഫ്രണ്ട്സിനൊന്നിച്ചു പോയിട്ട് കടപ്പുറം നല്ല വിശാലമായ സ്ഥലമുണ്ടവിടെ നമ്മുടെയാ ഏരിയയിൽ കാറ്റൊക്കെ കൊണ്ടിട്ട് കാ ആവൊരു പന്തുകളിയുടെ ഒരു സുഖം വേറെ തന്നെയാണ് അവർ പന്തുകളിക്കുകയാണ് ചെയ്യുന്നത് കൂടുതലും പന്തുകളിയോടാണവന് താത്പര്യം കൂടുതലും പിന്നെ വിനോദത്തിന് ചെയ്യുന്നത് വെച്ചാലെന്താ ഇതൊക്കെ തന്നെയാണ് അവരുടെ വിനോദങ്ങളെന്നൊക്കെ പറയുന്നത് പന്ത് കളി പിന്നെ ക്രിക്കറ്റ് കളിക്കുക ഫോൺ നോക്കുക ടി വി കാണുക ഇതൊക്കെയാണ് അവരുടെ വിനോദമെന്നു പറയുന്നത് എന്റെ മകളുടേത് പറയുകയാണെങ്കില് അവള്ക്ക് ഡാന്സ് വളരെ ഇഷ്ടമാണ് ഡാന്സ് കാ ഡാന്സ് കളിക്കും പിന്നെ റീല്സൊക്കെ നോക്കും കേട്ടോ യൂറ്റൂബിൽ യൂറ്റൂബിൽ പ്രെസൻറ്റ് റീല്സ് നോക്കും അവളുടെ അച്ഛനെ അവൾക്ക് ഭയങ്കരിഷ്ടാ അച്ഛനെ വലിചിട്ടൊക്കെ പോയി കടപ്പുറമൊക്കേ കളിച്ചിട്ടാണവൾ വരാറ് ഒഴിവു ദിവങ്ങളിൽ ഒഴിവു ദിവസങ്ങളിൽ അച്ഛനോട് പറയും അച്ഛാ വാ കടപ്പുറം കളിക്കാം പോകാം കടപ്പുറം പോയിട്ട് കുറച്ച് നേരം അവിടെ മണലിലൊക്കെയിരുന്നിട്ട് കളിച്ചിട്ടൊക്കെ വരൂ പിന്നെയെന്നു വെച്ചാലവർ ചെയ്യുന്നതൊഴിവു ദിവസങ്ങളിൽ വീട്ടിലിരുന്നിട്ട് രണ്ടുപേരും ഒന്നിച്ച് അപ്പുറെ എന്താപറയുക കിച്ചണ് സെറ്റൊക്കെ വെച്ചിട്ട് ഡോക്ടര് സെറ്റൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് ഡോക്ടര് സെറ്റ് കിച്ചണ് സെറ്റൊക്കെ വെച്ചിട്ട് ടേബിളിൽ വെച്ചിട്ട് ഡോക്ടറൊക്കെയാക്കി കളിക്കും മോൾ ഡോക്ടറാകും മകന് പേഷ്യന്റ്റാകും എന്നിട്ടവർ പനിയുണ്ടോ അങ്ങനെയുണ്ടോ ഇങ്ങനെയുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് ടാബ്ലെട്സൊക്കെ എഴുതി കൊടുക്കുന്ന പോലെയൊക്കെ കളിക്കും കേട്ടോ ഡോക്ടര് സെറ്റ് വെച്ചിട്ട് പിന്നെ കിച്ചണ് സെറ്റ് വെച്ചിട്ട് എന്റെ ചേച്ചിയും മോളുമാണ് കളിക്കുന്നത് അവർ രണ്ടുപേരും കളിക്കുന്നത് തന്നെ കാണാനൊരു ഭംഗിയാണ് ഏതു സമയവും അവർ കളിക്കുന്നത് കാണണം ഒരു എന്താപറയുക പക്വതയുള്ളവരെ പോലെയാണവരുടെ കളികൾ കിച്ചണ് സെറ്റിലുള്ള ഗ്യാസ്സ്ടവ്വൊക്കെ വെച്ചിട്ട് സ്ടവ്വിന്റെ ആ ഒരു ഡമ്മിയുണ്ടല്ലോ അതൊക്കെ വെച്ച് അതിലേക്ക് പാത്രം വെച്ച് കടലാസ്സ് മുറിച്ചിടും ഇല മു ഇലയൊക്കെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടവരെന്താക്കും അമ്മാ ദോശയായി ചോറായി എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കഴിക്ക് എന്നെയല്ല കേട്ടോ വിളിക്കുന്നമ്മയെന്നു ചേച്ചീന്റെ മോളെ വിളിക്കും മോളാക്കുന്നെയെങ്കില് ചേച്ചീന്റെ മോളോടു പറയും അമ്മ കഴിക്കമ്മാ അമ്മ ഞാനുണ്ടാക്കിയ ദോശയമ്മ കഴിക്കമ്മാ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും കേട്ടോ അവരുടെ കളികളൊക്കെ കാണാന് തന്നൊരു ഭംഗിയാണ് പിന്നേ ഡാന്സ് കളിക്കും എന്റെ മോൾ നന്നായിട്ട് ഡാന്സ് കളിക്കും ഡാന്സ് അവൾക്ക് വളരെ ഇഷ്ടാ ഡാന്സ് കളിക്കുന്നത് പാട്ടൊരു രണ്ടുവരിയൊക്കെ വെച്ചിട്ട് കളിക്കും ഫുള് മുഴുവനായിട്ടൊന്നും കളിക്കില്ല നാല് വയസ്സേ ആയിട്ടുള്ളൂ അവൾ ഒഴിവ് ദിവസങ്ങളിൽ മൊബൈലിൽ യൂറ്റൂബെടുത്തിട്ട് പാട്ടൊക്കെ വെച്ച് ഒരു സോങ്ങ് വെക്കും ആ സോങ്ങിനൊരു നാല് വരി വെച്ചിട്ട് ആ ഡാന്സൊക്കെ കളിക്കും പിന്നൊഴിവ് ദിവസമെന്തു ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ യാത്ര പോകുന്നതൊക്കെ അവർക്കിഷ്ടമാണ് നമ്മളെവിടെയെങ്കിലും ബീച്ചിലോ പിന്നെ ഏതെങ്കിലും പാര്ക്കിലൊക്കെ കൂട്ടിക്കൊണ്ടു പോകുമ്പോളൊക്കെ കളിക്കും